ഹലോ ടൂറിസ്റ്റ് ഗൈഡ് അല്ലെ ഞങ്ങള് വയനാട്ടിലേക്ക് ടൂർ വരുന്നുണ്ടായിരുന്നു അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് അവിടെ എന്തൊക്കെ കാണാൻ ഉണ്ട് അതെ

അതെ ഞങ്ങളൊരു അഞ്ചാറ് പേരുണ്ട്

ഒരു രണ്ട് ദിവസ് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ വരാമെന്ന് തീരു വിചാരിച്ചത് അതെ അഞ്ച് ആറുപേര് അതെ

അ ശരി